തീർച്ചയായും കാരണം ഒളിമ്പിക്സിലെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഓടാൻ ശ്രമിച്ച ഒരു ഇന്ത്യൻ വനിത പ്രഥമ ഇന്ത്യൻ വനിത എന്ന എന്നാണ് എനിക്ക് തോന്നുന്നത് പിടി ഉഷേനെ നമ്മുടെ നാട്ടുകാരിയാണ് പുള്ളിക്കാരിയുടെ അതായത് പിടി ഉഷ മാമിൻ്റെ വക ഒരു സ്കൂളുണ്ട് സ്പോർട്സിലെ അത്ലറ്റിക്സില് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും നല്ല രീതിയിൽ ഒരു രീതിയിൽ അവരെ പ്രചോദനം ചെയ്യുന്ന ഒരു കായിക കായികലോകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരു വനിത ഇപ്പോഴും സ്പോട്സിൽ സജീവമായിരിക്കുന്ന ഒരു വനിത അങ്ങനെ വേണമെങ്കിൽ പറയാം പിടി ഉഷയെ കുറിച്ചിട്ട് ആളില് ആളെന്നു വെച്ചിട്ടുണ്ടെങ്കില് വളരെ കഷ്ടപ്പെട്ട് ഈ ഒരു നിലയിൽ എത്തി എന്ന് വേണം പറയാൻ കാരണം ഇപ്പോഴും സജീവമായി സ്പോർട്സിൽ നിൽക്കുന്നു ബാക്കിയുള്ളവർക്ക് സ്പോർട്സിൽ വേണ്ട കാര്യങ്ങൾ നിർദ്ദേശം നൽകാൻ ഇപ്പോഴും മാമിനെക്കൊണ്ട് പറ്റുന്നുണ്ട് പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ ഒരു ഇത് വളരെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അവർക്ക് അതില് പിന്നെ സ്വർണ്ണം ഒന്നും കിട്ടിയില്ല സ്വർണം കിട്ടിയില്ലെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല പക്ഷെ നമ്മുടെ ഒളിമ്പിക്സിൽ നാലു വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സില് അതില് പങ്കെടുക്കുക എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു വിജയമാണ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു സ്വപ്ന തുല്യമാണ് ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പാണ് അതൊരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പായിരിക്കണം പത്ത് ഇരുപത് വർഷത്തിന് എന്തായാലും മുമ്പാണ് പി ടി ഉഷ മത്സരിക്കാൻ പോയത് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടി ഫെസിലിറ്റീസ് ഒക്കെ കൂടിയിട്ടുണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു നിലയിൽ എത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെന്റ് ആണ് അവരിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്